സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നൊര് പ്രദേശമാണ് കാസർകോഡ് ഇവിടെ പല പല ഭാഷകള് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അതില് തന്നെ ഭാഷകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പദങ്ങള് ഒരു ഭാഷയില് കയറി ചെന്നിട്ടുമുണ്ട് അതില് മലയാളം മലയാളത്തിൻ്റെ വികാസത്തിലായിട്ട് ഈ ഭാഷകൾ ഈ ഇവിടുത്തെ ഭാഷകള് വി സ്വാധീനിച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ മലയാളം ഇവിടുത്തെ മലയാളം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊര് ചില പദങ്ങള് വളരെ വ്യത്യസ്തമായിട്ടുള്ള അതിലേറെ രസകരമായിട്ടുള്ള പദങ്ങളാണ് മലയാളത്തിൽ തന്നെ ഈ പ്രദേശത്ത് കാണപ്പെട്ടിട്ടുള്ളത് അതില് ചില പദങ്ങള് നമക്ക് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ പെട്ടന്ന് മനസ്സിലാവാത്ത രീതിലുള്ള ചില പദങ്ങള് ഉണ്ടായിട്ടുണ്ട് ഒന്നാമതായിട്ടുള്ളത് ഒന്ന് മജ മജാന്ന് പറഞ്ഞ ആസ്വദിക്കുന്ന അത്രയും ആസ്വാദനം ലഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ പീഡികാന്ന് പറഞ്ഞാൽ കട എന്നാണ് പിന്നെ പൊര പൊരാന്ന് ഉദ്ദേശിക്കുന്നത് വീടിനെയാണ്

ജാറുന്നേന്നു പറഞ്ഞെങ്കിൽ ഇങ്ങനെ വഴുതി വീഴുന്ന ആ സ്ഥലങ്ങളാണ് ജറുന്നേന്നു ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ജാഗാന്ന് പറഞ്ഞാല് ഒരു സ്ഥലം എന്നാണ് പിന്നെ പിന്നെ ബണ്ണെ ബണ്ണെന്നു പറഞ്ഞാല് വെറുതെ എന്നാണ് ഉദ്ദേശിക്കുന്നത് പയ്യു പശു കെനം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കിണറ് പയ്ക്കുന്നേന്ന് പറഞ്ഞാൽ വിശക്കുന്ന് അങ്ങനെ ഒരിക്കലും നമ്മള് പെട്ടന്ന് മറ്റൊര് പ്രദേശത്ത്ന്ന് വന്ന ആൾക്കാർക്ക് പെട്ടന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ചില വാക്കുകളുണ്ട് അതില് ഇതിൽ തന്നെ എല്ലാം മലയാളം ആണെന്ന് പറയാനും പറ്റില്ല ചിലത് മറ്റുള്ള ഭാഷകൾ ഇങ്ങോട്ട് കേറി വന്ന് ഈ സപ്തഭാഷാന്ന് പറഞ്ഞ രീതിയില് അതിൽനിന്നുള്ള ഓരോ പദങ്ങളിങ്ങോട്ട് മലയാളത്തിലോട്ട് കേറി വന്നതാണ് അതുപോലെതന്നെ ഇവിടുത്തെ ഈ ഭാഷയിലുള്ള പദങ്ങള് മറ്റുള്ള ഭാഷയിലേക്കും കേറി ചെന്നിട്ടുണ്ട് ബേജാറ് ബേജാറ്ന്ന് ഉദ്ദേശിക്കുന്നത് വിഷമം എന്നാണ് പിന്നെ ബെർതെ ബെർതെ എന്ന് പറഞ്ഞ വെറുതേന്നുള്ള ഇതാണ് പിന്നെ കോ സാധാരണയായിട്ട് ആയിപ്പാന്ന് പറയലുണ്ട് ആയിപ്പാ മീൻസ് ആയിപ്പാന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു അപേക്ഷയുടെ രൂപത്തിലുള്ള ഒര് ഇതാണ് വിളിക്കർലോ അങ്ങനെ പറഞ്ഞാല് എന്നെ ഒന്ന് വിളിക്കുവോ അങ്ങനെ

പിന്നെന്താ മൂഡ് നമ്മളുടെ അടപ്പിനെ പറയന്നതാണ് മൂഡ് കടപ്രം അത് ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രയോഗമാണ് പിന്നേതാ ഓർത്തു വെച്ചാല് ആ അങ്ങനെ പല പല പ്രയോഗങ്ങള് ഉണ്ട് മലയാള ഭാഷയിൽ തന്നെ ഇപ്പം മലയാളാണോന്ന് വെച്ചാല് കളിയാക്കിയെന്ന രീതിയിലാണെങ്കിലും അത് മലയാളമാണൊന്നു എല്ലാവരും എന്താ പറയണ്ടെ ഒര് പരാമർശം ഇതിന് ഈ ഭാഷയ്ക്ക് ലഭിക്കുന്നുണ്ട് നമ്മളെ കാസർകോടുള്ള ഭാഷയ്ക്ക് അല്ലാതെ ഇവിടുത്തെ മല മറ്റു ഭാഷകൾടെ വികാസത്തെ എങ്ങനാണ് സ്വാധീനിച്ചത് ഈ പദങ്ങള് തന്നെ അങ്ങോട്ടും മാറിപ്പോവുന്ന തന്നാണ് പ്രധാനമായിട്ടും മനസ്സിലായിട്ടുള്ളത്